നമ്മുടെ കേരളത്തിൽ സ്വകാര്യ ആശുപത്രികൾ കൂടുന്നത് എന്താണെന്നു ചോദിച്ചാൽ ജീവിതശൈലി രോഗങ്ങളുമായി ആരോഗ്യ ഇൻഷുറൻസിൻ്റെ നുഴഞ്ഞുകയറ്റം പിന്നേ വർദ്ധിച്ചു വരുന്ന നഗരവത്ക്കരണം പിന്നെ ഗാർഷി ഗാർ ഗാർഹിക വരുമാനം വർദ്ധിപ്പിക്കൽ പിന്നേ ഇത് പിന്നെ സ്വകാര്യ ആശുപത്രികളിലെ സാങ്കേതിക വിദ്യ ഉപയോഗവും സർക്കാർ ആശുപത്രികളായ ലഭ്യത നില ലഭ്യത കുറവും പിന്നേ മരുന്നുകളുടെ ലഭ്യത കുറവ് പിന്നെ ഡോക്ടർമാരുടെ കുറവ് പിന്നെ സർക്കാർ ആശുപത്രികളിലെ അനാസ്ഥ രോഗികളെ പ്രൈ പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് ആകർഷിക്കുന്നു അതുമൂലം കേരളത്തിലെ പ്രൈവറ്റ് ആശുപത്രി ആശുപത്രികൾ വർദ്ധിച്ചുവരുന്നു പിന്നെ പിന്നേ പിന്നെന്താ